ഹലോ ഇത് കാട്ടിക്കുളം ഹോളിഡിയാഹിൽ റസ്റ്റോറൻ്റ് അല്ലേ അപ്പം ഞാനവിടെ നിന്നൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പം അതൊന്ന് ക്യാൻസല് ചെയ്യാൻ വിളിച്ചതാണ് നിങ്ങളാദ്യം പറഞ്ഞത് എന്നോട് പറഞ്ഞത് ട്രാൻസിഷൻ ഗൂഗിൾ പേ വഴി നടത്തിയാൽ മതി എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നു ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് അപ്പം എനിക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാഷ് ഓൺ ഡെലിവറി നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഓർഡറ് ചെയ്തപ്പോഴേ പറഞ്ഞത് ഗൂഗിൾ പേ വഴി ആണ് അയയ്ക്കുക എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് അതുകൊണ്ടുതന്നെ എനിക്ക് കഴിയാത്ത കഴിയില്ല അതുകൊണ്ടു തന്നെയാണ് ഞാൻ ഇത് ഫുഡ് ക്യാൻസല് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അർജൻ്റായിട്ട് ഒരിടം വരെ പോകണമായിരുന്നു അപ്പം പിന്നെ അതുകൊണ്ടായിരുന്നു ഇപ്പം കയ്യിൽ ക്യാഷ് എടുക്കാനില്ല അപ്പം ബാങ്കിൽ പോയിട്ട് വേണം എടുക്കാൻ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും നമ്മളെ എന്നും ഓർഡറ് ചെയ്യുന്നൊരു റസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ റസ്റ്റോറൻ്റിൽ നിന്ന് ഓർഡറ് ചെയ്തത് പക്ഷേ നമ്മളെന്തായാലും ഫുഡ് ക്യാൻസല് ചെയ്യുകയാണ് സോറി